എൻറ്റെ വീട്ടില് ഞങ്ങളൊക്കെ ആസ്വദിച്ച് കളിക്കാറുള്ള കളികളാണ് ക്യാരംസ്സ് അതുപോലെ പാമ്പും കോണിയും അതുപോലെ ലൂഡോ ചെസ്സ് ഗോട്ടി ഗോട്ടി തട്ടിക്കളിക്കുമായിരുന്നു ഞങ്ങള് അതുപോലെ അക്ക് ഇതൊക്കെ വീടിനുള്ളില് കളിക്കുന്ന കളികളാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് കുട്ടികളിങ്ങോട്ട് വരികയും നമ്മളിപ്പോള് കുടുംബസംഗമം പോലെ എന്തെങ്കിലുമൊരു സംഗമമൊക്കെ വരുമ്പോള് കുട്ടികളൊരുപാട് ഉണ്ടാവില്ലേ അപ്പോള് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ക്യാരംസ്സ് കളിക്കാറുണ്ടായിരുന്നു അതുപോലെ വലിയയാൾക്കാര് ക്യാരംസ്സ് കളിക്കാന് കൂടാറുണ്ടായിരുന്നു പിന്നെ പാമ്പും കോണിയും നമ്മളാദ്യം ബോഡിലായിരുന്നു കളിക്കാറ് പാമ്പും കോണിയും അതുപോലെ ലുഡോയുമൊക്കെ ബോഡിലായിരുന്നു എന്നാലിന്ന് ഫോണില്ത്തന്നെ നമുക്ക് അവൈലബിളായത് കൊണ്ടുതന്നെ ഫോണിലും കളിക്കാറുണ്ട് അതുപോലെ ചെസ്സ് എല്ലാവർക്കുമൊന്നും അറിയുന്ന കളിയല്ല പക്ഷേ ഞാനുമെന്റെ ഏട്ടനുമൊക്കെ ചെസ്സ് കളിക്കുമായിരുന്നു ആദ്യമൊക്കെ ഇപ്പോള് ഒന്നുമോര്മയില്ല പിന്നെ ഗോട്ടി കളിക്കുമായിരുന്നു മുറ്റത്ത് നിന്ന് മുറ്റത്തുനിന്ന് ഗോട്ടി ഇങ്ങനെ കുറച്ച് കുഴികളുണ്ടാക്കി വിരലുകൊണ്ട് തട്ടി കളിക്കുമായിരുന്നു